ആഹ് ഏത് പൂവാണ് വേണ്ടത് ആഹ് തുമ്പ തെച്ചി മന്ദാരം റോസ് ബന്തി ഡാലിയ എല്ലാമുണ്ട്

ചെണ്ടുമല്ലിയാണ് കൂടുതലുള്ളത് ഓറഞ്ചും മഞ്ഞയും ഉണ്ട് ഇതിന് കിലോ നാന്നൂറാണ് വരുന്നത് ആഹ് തുമ്പപ്പൂ ഒക്കെയുണ്ട് സാർ

തുമ്പ വൈറ്റേ ഉള്ളൂ ഇല്ല ഇല്ല ഇതുവരെ ഇറങ്ങിയിട്ടില്ല

ചെണ്ടുമല്ലിയേ ആഹ് ആഹ് ആഹ് വാടാമല്ലിയുണ്ട് വാടാമല്ലി ആഹ് വാടാമല്ലി ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി എമ്പത് രൂപയാണ് വരുന്നത്

ആഹ് റോസുണ്ട് പല കളർ റോസുണ്ട് എല്ലാ പൂക്കളും ഓണത്തിന് നമ്മൾ അത്തത്തിന് ഇടും അതിന് മുന്നൂറ് ആഹ് എല്ലാ കളറും മിക്സ് ചെയ്തെടുക്കണോ സാറേ എല്ലാ കളറും കൂടി മിക്സ് ചെയ്തെടുക്കണോ ആഹ് അല്ലെങ്കിൽ ഒരു കാൽ കിലോ കാൽ കിലോ എല്ലാ കളറും കൂടി എടുക്കണോ ആഹ് എന്നാൽ കുറേ കളർ വെറൈറ്റീസ് കിട്ടുകയും ചെയ്യും ആഹ് അപ്പോൾ ഒരു വാടിയതൊന്നുമല്ല ഇന്ന് രാവിലെ വന്ന സാധനമാണ് സാർ

ഗുണ്ടൽപേട്ട് നിന്ന് അതൊക്കെ രാവിലെ ഇപ്പോൾ ഓണം അടുത്തുവരുന്ന സമയത്ത് കൂടുതൽ ആവില്ലേ സാറേ ഇനി നാളെ തിരുവോണം ആകുമ്പോഴത്തേനും കൂടുതൽ ഇതിലും വില ഇരട്ടി ആവുകയാണ് ചെയ്യുക

ആഹ് വന്നോട്ടെ ആഹ് ഓക്കേ എപ്പോഴാണ് വരുക ആഹ് ആയിക്കോട്ടെ ആഹ് ശരി എടുത്ത് വച്ചേക്കാം